കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഭൂപ്രകൃതിയുമായിട്ട് നമുക്കറിയാം പിന്നെ കേരകളുടെ നാട് എന്നൊരു സവിശേഷത കേരളത്തിനുണ്ട് ഒരുപാട് തെങ്ങുള്ളൊരു നാടാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കായലുണ്ട് നദിയുണ്ട് മലയുണ്ട് നമ്മുടെ വയനാട് കുറച്ച് സ്ഥലങ്ങളിലൂടെയാണെങ്കിൽ പശ്ചിമഘട്ടം പശ്ചിമഘട്ട മലനിരകൾ കടന്ന് പോകുന്ന സ്ഥലമാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കോഴിക്കോട് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം അതൊക്കെ നല്ലൊരു ഒരു പ്രത്യേക തരം അനുഭവമാണ് നമ്മൾ മലയാളികൾക്ക് പിന്നെ കടലാണെങ്കിലും കായലാണെങ്കിലും എന്തു കൊണ്ടും പല തരത്തിലുള്ള സവിശേഷതകളും നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളം എനിക്കേറ്റവും ഇംപ്രസ്സീവായിട്ട് തോന്നിയിട്ടുള്ളത് ചുരം തന്നെയാണ് അത്രയും വലിയൊരു ചുരത്തിന്റെ നടുവിലൂടെ കീറി മുറിച്ച് നല്ല ചുരത്തിനു വേണ്ടി അനുയോജ്യമായി ചുരം മുറിച്ച് കടക്കാൻ വേണ്ടി റോഡും ആ ഒരു കോട മഞ്ഞും ആ കാലാവസ്ഥയും ജനങ്ങളും എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്